നമ്മുടെ ഗ്രാമണ ഗ്രാമീണ സമൂഹത്തിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിക്കറ്റ് കളി പിന്നെ ഫുട്ബോള് കളി പിന്നെ വോളിബോള് അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇല്ല അപ്പം നമ്മൾ കൂടുതലായിട്ടും അതിനെയൊക്കെ വികസിപ്പിച്ചെടുക്കുകാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നല്ല രീതിയിൽ സ്റ്റേറ്റ് ലെവലും അങ്ങനത്തെ ഓരോ കാറ്റഗറിയിലൊക്കെ എത്താൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തീരെ കഴിവില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഇപ്പൊത്തന്നെ നമ്മുടെ മാനന്തവാടിയിൽ ഒരു എന്താ പറയാ ഒരു എസ് ടി കുട്ടി ഒരു പെൺകുട്ടി അപ്പോൾ അവൾ എന്തപറയാ ഇന്ത്യൻ ടീമിലൊക്കെ കയറിയിട്ടുണ്ട് മിന്നുമണീന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളെപ്പോലെയൊക്കെ എത്തണമെങ്കിൽ എന്താ പറയാ ആദ്യം തൊട്ടെ നമ്മൾ പരിശ്രമിക്കണം അത്യാവശ്യം ഇപ്പം ഇപ്പം എന്താ പറയാ പിള്ളാരൊക്കെയായിട്ട് ഒന്ന് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ കളിച്ചുവരുന്ന അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കുന്ന കളിച്ചുതുടങ്ങിയിട്ടുവേണം നമ്മൾ ആതിനും എന്താ പറയാ വലിയ രീതിയിലൊക്കെ കളിയിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തെയ്യാ കളിയിലൊക്കെ എത്തുക അപ്പം ഗ്രാമീണ തലത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റുകളിയും ഫുട്ബോള് കളിയും അങ്ങനത്തെ കാര്യങ്ങളിപ്പം പലകളികളൊക്കെയുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് ലെവല് അങ്ങനെ ഓരോ ലെവലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാനും കഴിവുകൾ കഴിവിപ്പോൾ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ വികസിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിക്കും കായികപരമായിട്ടും പല കാര്യങ്ങളിലും അങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും